മറ്റു മതങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ മതത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാല് മതം മനുഷ്യനാണ് സൃഷ്ടിച്ചെന്ന് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നല്ലേ പയുന്നത് മനുഷ്യൻ അവരവരെ താൽപര്യങ്ങൾക്കനുസരിച്ച് മതങ്ങളെ സൃഷ്ടിച്ചു നമ്മുടെയൊക്കെ പിന്നെ എന്തോ പറഞ്ഞെ നമ്മുടെയൊക്കെ മുൻജന്മികള് മീൻസ് മുൻജൻമികളെന്ന് പറഞ്ഞാല് നമ്മുടെ പൂർവ്വപിതാമഹന്മാര് ഏതു മതത്തിലാണ് വിശ്വസിച്ചിരുന്നത് അതിങ്ങോട്ട് വന്ന് വന്ന് നമ്മളും ഇപ്പം ഇന്ന മതത്തിലാണ് നമ്മള് വിശ്വസിക്കുന്നെ ഇന്ന മതത്തിലാണ് നമ്മള് ജനിച്ചത് അല്ലെങ്കില് അവര് പിന്തുടർന്ന മതത്തിൽ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റാത്ത് ഹിന്ദുക്കളുണ്ട് മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അങ്ങനെ അവര് അവരവരുടേതായ മതത്തിൽ വിശ്വസിക്കുന്നു പിന്നേ എന്തോ പറയുന്നേ മറ്റു മതങ്ങളെ ഞാന് മറ്റു മതങ്ങളെ ഒന്നും കുറ്റപ്പെടുത്താൻ ഒന്നും പോകുന്നില്ല മറ്റു മതങ്ങളില് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇഷ്ടമാണ് ക്രിസ്ത്യാനികളായാലും മുസ്ലീങ്ങളെയാ അവരെ മതത്തില് നമുക്ക് വിശ്വാസമുണ്ട് കാരണം നമ്മള് ഒരു മതത്തെപ്പോലും നിന്ദിക്കുന്നില്ല നിന്ദിയ്ക്ക്ന്ന് പറഞ്ഞ വന്നിച്ചില്ലേലും നിന്നിക്കരുത്ന്നാ പറയുന്നെ നമ്മള് വന്നിക്കാനും നിന്ദിക്കാൻ പോകത്തില്ല കാരണം ഓരോ മതത്തിനും അവരുടേതായ കാര്യങ്ങളുണ്ട് പിന്നെ ക്രിസ്ത്യാനികളിൽ ഒക്കെ ആണേലും അവര് റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയില് പോന്നു എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് മുസ്ലീങ്ങളാണേലും എല്ലാ വെള്ളിയാഴ്ചകളിലും സ്ത്രീകൾക്ക് പോകാന് പറ്റില്ലെങ്കിലും പുരുഷന്മാരെല്ലാം പള്ളിയില് പോകുന്നുണ്ട് അവര് എല്ലാ കാര്യങ്ങളും സമയാനുബന്ധിതമായി എല്ലാ കാര്യങ്ങളിലും പിന്നെ ഹിന്ദുക്കളുടെ ഇടയിലെന്നുപറഞ്ഞാല് അവർക്ക് എന്നും അമ്പലത്തില് പോണെന്നൊന്നും താല്പര്യമില്ല എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളുടെ ഇടയിലാണെന്ന് തോന്നുന്നു കൂടുതലും നിരാ നിരീശ്വരവാദികള് കൂടുതലും ഹിന്ദുക്കളുടെ ഇടയിലാണെന്ന് തോന്നുന്നു മതം എന്ന് പറഞ്ഞാല് പിന്നെ പേരിനൊരു മതം എന്നേ ചിലര് സങ്കൽപ്പിച്ചിട്ടുള്ളൂ പിന്നേ മതം കൊണ്ട് പ്രത്യേകിച്ച് എന്തുവാ പറയുന്നേ നമ്മളിപ്പൊരു ന്നാ വലിയ ഒരു കൂടുതൽ മെച്ചമായ നായർ സമുദായത്തില് ജനിച്ചതുകൊണ്ട് നമുക്ക് കൂടുതല് ഇതു കിട്ടുന്നു അങ്ങനെ ഒന്നുമില്ല പിന്നെ മതം വേണം എന്നാലും വേണ്ട എന്നല്ല പറയുന്നത് വേണം പിന്നെ നാനാത്വത്തിൽ ഏകത്വമെന്നു പറഞ്ഞാല് എല്ലാ മതക്കാരും കൂടൊന്നിച്ച് സഹവർത്തിത്തോടെ സഹിഷ്ണുതയോടു കൂടിയും ജീവിക്കാ ആർക്കും ആരെയും ആരെയും ഉപദ്രവിക്കുവോ അല്ലേ അവരുടെ മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ അവരുടെ മതത്തെ കൈകടത്താനൊരു ഒരു ഒരു മതക്കാർ മറ്റു മതക്കാരെ കുറ്റം പറയാനോ അവരുടെ മതത്തെ കൈ കടത്താനോ ഒന്നും പോകരുത് എല്ലാവരും എന്തു കാര്യം വന്നാലും ഇപ്പോള് നമ്മൾ ഒരു നാട്ടില് ജീവിക്കുകയാണെങ്കില് തന്നെ പല മതത്തിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കണം പല മതത്തിലുള്ള ആൾക്കാരാണ് ജീവിക്കുന്നത് നമ്മുടെ അയൽപക്കക്കാര് തന്നെ പല നമ്മള് ഹിന്ദുക്കൾള് തന്നേലും ഹിന്ദുക്കള് കാണും ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും കാണും അവരെല്ലാരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുകയാണ് ഒരു വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാല് എല്ലാവരും കൂടെടുക്കുവാ അല്ലാല് അയ്യോ അവര് ഇന്ന ജാതിപ്പെട്ടാണ് അല്ല ഇന്ന മതത്തില് പെട്ടതാണ് ഞങ്ങളവരെ വീട്ടില് പോകത്തില്ല സഹകരിക്കത്തില്ലെന്നല്ല എല്ലാവരും ഒരുപോലെ ജീവിക്കുക മതങ്ങള് നമ്മളെ ഏത് മതത്തിൽ വിശ്വസിച്ചോട്ട് എല്ലാവരും മതങ്ങളെല്ലാം അവരവരുടേതായ മനസ്സില്ലേ ഒരു കാര്യമാണ് പിന്നെ ഒരു എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ പിന്നെ എന്തുപറഞ്ഞേ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ജീവിക്കുക അന്യോന്യം സഹകരിച്ചും സ്നേഹത്തോടും സഹവർത്തിത്തത്തോടും കൂടി ജീവിക്കുക അതേ അതാണെൻ്റെ അഭിപ്രായം